ഹലോ ഞാൻ ഒരു ഏജൻ്റ് ആയിരുന്നേ ല് ഞാൻ ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ട് തുണികളൊക്കെ എടുത്തുകൊണ്ട് കൊണ്ട് പലയിടത്ത് കൊണ്ട് വിറ്റ് അങ്ങനെയാണ് ചെയ്യാറ് ഇത് കടയുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് അതെയോ ആ എന്ത് ഏത് തരത്തിലുള്ള ഡ്രസ്സ് അങ്ങനെ ഒക്കെ ഉണ്ടോ എല്ലാ തരത്തിൽ ഉള്ളതും ഉണ്ടോ ആണോ കൂടുതലായിട്ട് എങ്ങനെയാണ് ഉള്ളത് സാരി ചുരിദാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ അതെയോ ജെൻറ്റ്സിന് ഷർട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ ആണോ ഇപ്പം ഞാൻ ഒരു പത്ത് സാരി എനിക്ക് വിറ്റ് തന്നാൽ എനിക്ക് എത്ര കമ്മീഷൻ തരും അതിപ്പം നമ്മളൊരു ഞാൻ ആൻറിയുടെ കയ്യിലിരിക്കുന്ന സാരിക്ക് അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഞാൻ എനിക്ക് അതൊരു നാനൂറ്റമ്പത് രൂപയ്ക്ക് തരുമോ അതോ ഏതാണ് ആ ഞാന് ഒരു പത്ത് സാരി എടുത്താൽ എനിക്ക് എല്ലാ ഓരോ പീസിനും അമ്പത് രൂപ വെച്ച് കുറച്ചിട്ട് തരുമോ ആ അപ്പം ചുരിദാർ അങ്ങനെയുള്ള ലേഡീസ് ഐറ്റംസ് എങ്ങനെയാണ് ടോപ്പ് തന്നെ ആയിട്ടാണോ അതോ സെറ്റ് ആയിട്ടാണോ അതെയോ ആ ഞാൻ നേരിട്ട് വന്ന് എടുക്കുമോ അതോ എനിക്ക് കൊറിയർ അയയ്ക്കുമോ അതെ ആ ഇപ്പം എന്നത്തെ ഏത് ദിവസങ്ങളിലാണ് ലോഡ് വരുന്നതൊക്കെ അത് കറക്റ്റ് ഡേറ്റ് ഇല്ല മാസത്തിലാണോ ആഴ്ചയിൽ വരുമോ ആണോ അപ്പം ആ എങ്ങനെയാണ് എനിക്ക് ബൾക്ക് ആയിട്ട് എനിക്ക് നിങ്ങൾ ഇതാക്കി തരുമോ അതോ ഞാൻ വന്നിട്ട് ഇത് ഓരോന്നും സപ്പറേറ്റ് ചെയ്യണോ എങ്ങനെയാണ് നേരിട്ടുള്ളവരുമായിട്ട് തരുമോ അതോ നിങ്ങളുമായിട്ടാണോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ആണോ അപ്പം കോൺട്രാക്ട് അങ്ങനെ എന്തെങ്കിലും ഇത്ര നാളത്തേക്കെന്ന് അപ്പം ഡ്രെസ്സിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിലോ തിരിച്ച് എടുക്കുമോ ഓ അല്ലാണ്ട് നിങ്ങൾ അത് അപ്പോൾ നിങ്ങൾ അത് മാറ്റി തരുക അങ്ങനെയൊന്നും ഇല്ലേ ആ ഓക്കെ അപ്പം എന്നാൽ ഞാൻ കടയായിട്ട് കോൺടാക്റ്റ് ചെയ്തോളാം എനിക്ക് ലൊക്കേഷൻ ഒന്ന് വാട്സാപ്പ് ചെയ്യണേ ഈ നമ്പറിൽ ആ ഓക്കെ താങ്ക് യു